ആ പറ ഇനിക്ക് അലോപ്പതി ഒട്ടും പിടിക്കുന്നില്ല അല്ലേ കണ്ണിന് എടി അങ്ങനെ ആണെങ്കിൽ കൊച്ചിയിൽ നമ്മളെ നാട്ടിൽ തന്നെ ഒരു ആ കണ്ണാശുപത്രി ഉണ്ട് ഒരു ആയുർവ്വേദ കണ്ണാശുപത്രി ഉണ്ട് ശ്രീധരീയം ആയുർവ്വേദ കണ്ണാശുപത്രി ആണ് വളരേ നല്ലതാണ് എന്താണ് പറയണ്ടെ അത്രക്കും നല്ല ഒരു ഡോക്ടേഴ്സ് നഴ്സ് അവർ ഒക്കെ വളരേ അധികം നല്ലതാണ് നമ്മൾ ഇപ്പോൾ കണ്ണിന് എത്ര വലിയ രോഗമായി കഴിഞ്ഞാലും അലോപ്പതി പിടിക്കാതെ ആൾക്കാർക്ക് ആയുർവ്വേദത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും ചികിത്സക്ക് വരുന്നണ്ട് അവിടെ ഏറ്റവും നല്ലത് കണ്ണിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആയുർവ്വേദം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കുറച്ച് സമയം എടുക്കുമെങ്കിലും അത് പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം നമ്മളെ കണ്ണിന് നല്ല ഒരു മാറ്റം ആണ് ഉണ്ടാവുക ഭയങ്കര വേഗം തന്നെ അത് വേഗം ബേധമാവും അത് അത് മാത്രമല്ല എൻ്റെ ഒരു കുടുംബക്കാർക്ക് ഈ ഒരു പ്രശ്നം നിൻ്റെ അതേ പ്രശ്നമല്ല പക്ഷെ കണ്ണിന് ഇങ്ങനെ കാഴ്ച മങ്ങൽ ഉണ്ടായിട്ട് ഈ ഒരു ആയുർവ്വേദ കണ്ണാശുപതിയിൽ പോയപ്പോഴാണ് ശ്രീധരീയം ആയുർവ്വേദ കണ്ണാശുപത്രി പോയപ്പോഴാണ് വളരെ നല്ലൊരു ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിന് അപ്പോൾ ഈ ഒരു ആയുർവ്വേദ കണ്ണാശുപത്രി പോയപ്പോഴാണ് അവർക്ക് നല്ല ഒരു കാഴ്ച കിട്ടിയത് അതേടി വളരെ അധികം തുച്ഛമായ ചികിത്സാ ചിലവ് മാത്രമേ എല്ലാവർക്കും വരുന്നുള്ളൂ എന്നാണ് എൻ്റ ഒരു ആ കുടുംബം ഞാൻ പറഞ്ഞിട്ടില്ലേ കുടുംബക്കാര് പോയിനീന്ന് അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര തുച്ഛമായ ഒരു ചികിത്സാ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ അത്ര വലിയ വലിയ പൈസ ഒന്നും വന്നിട്ടില്ല അലോപ്പതി എല്ലാം നമ്മൾ കാണിക്കുമ്പോൾ വലിയ വലിയ പൈസയും വലിയ വലിയ മരുന്ന് എല്ലമല്ലേ അവർ എഴുതി തെരുത്ത് അവിടെ നിന്നിട്ട് തന്നെ നമ്മൾക്ക് ചികിൽസിക്കാം അപ്പോൾ അതിന് വലിയ വലിയ പൈസഒന്നും ആവുന്നില്ല ആയുർവ്വേദമായത് കൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും അത് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം എടുത്താലും നല്ല ഒരു ചികിത്സാ രീതി ആണ് അവർ പിന്തുടർന്ന് വരുന്നത് അതുകൊണ്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല ഒരു പ്രതീക്ഷ വച്ചിട്ട് തന്നെ ഇനിയും അങ്ങോട്ട് പോവാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ നീ അവിടുത്തേക്ക് പോവുമ്പോൾ എന്നോട് ഒന്ന് പറ നമ്മൾക്ക് നോക്കിയിട്ട് വേണ്ടിക്ക ഒന്നിച്ച് പോവാമല്ലോ എനിക്ക് അറിയുന്ന ഒരു ആശുപത്രി അല്ലേ അപ്പോൾ വേണ്ടിക്കൽ ഞാൻ ഒന്നിച്ച് വരാം